സെല്ഫ് ഹെല്പ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ആശയമാണ് അതുമൂലം നമുക്ക് സ്വന്തമായി തൊഴിൽ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ് ഇപ്പോൾ സ്ത്രീകൾക്കുള്ള നല്ലൊരു തൊഴിൽ എന്ന് പറയുമ്പോൾ അവർക്ക് നമുക്ക് തുന്നൽ പഠിക്കാം തുന്നൽ പഠിച്ചാൽ അവർക്ക് അത്യാവശ്യ ചെലവുകൾ അതിൽ നിന്നും വരുമാനം ലഭിക്കുകയും പിന്നെ വഴികളിലൂടെ അവർക്ക്